ഇപ്പോൾ എന്റെ പ്രദേശത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതായത് ബി ജെ പി മാർകിസ്റ്റ് പാർട്ടി പിന്നെ കോൺഗ്രസ്സ്കാർ പിന്നെ അല്ലാത്ത പാർട്ടികളും അതായത് എസ് ഡി പി ഐ അങ്ങനത്തെ കുറേ പാർട്ടികളുണ്ട് ലീഗ് അങ്ങനത്തെ കുറേ പാർട്ടികളുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നത് കൂടുതലായിട്ടും ഭരിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർ മാർകിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ അവരുടെ അജണ്ടന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മതേതരത്വം ആണ് അവരുടെ അജണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അതായത് കേരളത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശങ്ങളാണ് അവർ പറയുന്നത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മളെ ഭരിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി ജെ പിയാണ് അപ്പോൾ ബി ജെ പിക്ക് ഒരു ഒരു മതം മാത്രമാണ് അവർക്ക് താല്പര്യം അതായത് ഹിന്ദു മതം ബാക്കിയുള്ള മതങ്ങളൊക്കെ അവരെ അവർ അടിച്ച് പുറത്താക്കാനുള്ളൊരു ഇതിലാണ് ബി ജെ പിയുടെ ഇത് അപ്പം ഹിന്ദു മതത്തെയാണ് അവർ വളർത്തുന്നത് അപ്പോൾ കൂടുതലായിട്ടും അപ്പോൾ നമ്മുടെ ഇതിൽ മാർകിസ്റ്റ് പാർട്ടിന്ന് പറഞ്ഞാൽ മതേതരത്വം ആണ് കൂടുതലായിട്ടും കൊണ്ട് നടക്കുന്നത്